എനിക്ക് നെയ്യാൻ തയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പ തയ്യൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഷയമാണ് അത് കൂടുതലും കോട്ടൺ തുണികളൊക്കെ തയ്ക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം കോട്ടൻ തുണികൾ തയ്ക്കുകയാണെങ്കിൽ അത് ഒത്തിരി ഇഷ്ടം മറ്റുള്ള തുണികൾ തയ്ക്കുന്നതിനെക്കാളും നന്നായി തയ്ച്ചെടുക്കാനും നന്നായിട്ട് തുണിയെല്ലാം നല്ല രീതിയിലൊക്കെ ഇരിക്കും അതു കൊണ്ട് കോട്ടൺ തുണി തയ്ച്ചെടുക്കാനാണ് എനിക്കിഷ്ടം പിന്നെ കോട്ടൺ തുണികളിലൊക്കെയാണെങ്കിലും എംബ്രോയിഡറി തയ്ക്കാനും എംബ്രോയിഡറി ക തുണിക്കനുസരിച്ച് ഉള്ള കളർ നല്ല നിറങ്ങൾ ഒരു നല്ല നിറങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് എംബ്രോയിഡറി ചെയ്യാനുമൊക്കെ എനിക്ക് വളരെയേറെ ഇഷ്ടമാണ് അത് എനിക്കന്നൊക്കെ എംബ്രോയിഡറി പഠിക്കാനും കൂടുതലായിട്ട് പഠിക്കാനും അതൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അന്നത്തെ സാഹചര്യമനുസരിച്ച് അങ്ങനെയൊന്നും പഠിക്കാനോ കൂടുതലായിട്ട് തയ്യലിനെക്കുറിച്ച് പഠിക്കാനോ ഇതൊന്നും എനിക്ക് സാധിച്ചില്ല പിന്നെ ഒത്തിരിയേറെ ഇപ്പോഴാണെങ്കിലും എനിക്ക് തയ്യലിന് ഒത്തിരിയേറെ ഇഷ്ടമാണ് എനി അപ്പം എനിക്ക് അത് പഠിക്കാൻ സാധിക്കാത്തത് അന്ന് സാധിക്കാത്തതു കൊണ്ട് ഇന്ന് ഞാനെൻ്റെ എപ്പോഴും മക്കളിൽ മക്കൾക്ക് തയ്യലിനെക്കുറിച്ച് പറയുകയും തയ്യലിൽ എംബ്രോയിഡറി അവരെ പഠിപ്പിക്കുകയും അവരെ നല്ല രീതിയിൽ എംബ്രോയിഡറി ഒക്കെ രണ്ട് പേർ രണ്ട് മക്കളും എംബ്രോയിഡറി നല്ല രീതിയിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം എംബ്രോയിഡറി ഒക്കെ ചെയ്യുമ്പോൾ തുണിക്കനുസരിച്ച് കളറുകൾ തിരഞ്ഞെടുക്കാനും ഒക്കെ ഒത്തിരി അവരും എനിക്കും അവർ ഇന്ന തുണി ഇന്ന കളറുള്ള തുണി ഇഴക്ക് ഇന്ന കളറുള്ള എത്ര നൂല് അന്നു നന്നായി ചേരും ഇന്നന്ന ഇന്ന തുണിയിൽ ഇന്ന വർ ഇന്ന വർക്കൊക്കെ ചെയ്താൽ ഒക്കെ നല്ലതായിരിക്കുമെന്നൊക്കെ മക്കളും പറഞ്ഞു തരാറുണ്ട് അതു കൊണ്ട് എംബ്രോ തയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊക്കെയുണ്ടായിരുന്ന കൈത്തറി തുണികളും ഇപ്പോഴും അതൊക്കെയാണ് എനിക്ക് കൂടുതലിഷ്ടം ഇന്നത്തെ തുണികളെക്കാളുമൊക്കെ കൂടുതലിഷ്ടമെന്ന് പണ്ടുള്ള കോട്ടൺ തുണികളും കൈത്തറി തുണികളുമൊക്കെ അതൊക്കെ ചെയ്യാനായിട്ട് ഒത്തിരിയേറേ തയ്ക്കാൻ ഒത്തിരി ഇഷ്ടമാണ് മാ പിള്ളേർക്കു വേണ്ടി തൈ തൈ ഡ്രസ്സുകളൊക്കെ തൈക്കെ തൈച്ചെടുക്കാനൊക്കെ ഒത്തിരിയേറെ ആഗ്രഹമുണ്ട് പിന്നെ നൂലൊക്കെ പിള്ളേരുകൾ ഇന്ന് പിള്ളേരുടെ സഹായത്തോടെ തുണിക്ക് ചേരുന്ന കളർ എന്താണ് ചേരുന്ന കളർ നൂല് തിരഞ്ഞെടുക്കാനൊക്കെ അവർ സഹായിക്കാറുണ്ട് അവർക്ക് അവരെ ഞാനിപ്പം എംബ്രോയിഡറി പഠിപ്പിക്കുന്നതു കൊണ്ട് അവർ എന്നെ സഹായിക്കാറുണ്ട് പിന്നെ പലതരത്തിലുള്ള എംബ്രോയിഡറികൾ ചെയ്യുക ചെയ്യും പൂവും മറ്റുള്ള വർക്കുകൾ ഇതെല്ലാം കാണുന്ന ഇപ്പം ഒരാളുടെ രൂപമാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള ഒരാളുടെ ഫോട്ടോ നോക്കി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെയായിട്ട് മക്കൾ ചെയ്യുന്നുണ്ട് അത്രത്തോളം എനിക്കെത്താറായിട്ടില്ല മക്കൾ കൂടുതൽ പഠി നന്നായി പഠിക്കുന്നതു കൊണ്ട് അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ കളറുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ചെയ് ഒരു നല്ല കളറുകൾ ചെയ്തില്ലയെങ്കിൽ വർക്കെത്ര നന്നായിട്ട് ചെയ്താലും കളർ അത് ചേരുന്ന കളറല്ലെങ്കിൽ നമുക്കത് ശരി അത് കാണാനൊരു ഭംഗിയുണ്ടാകില്ല അപ്പോൾ നമ്മൾ ഏതു കളറാണോ തുണി ഏതു കളറാണോ അതിനനുസരിച്ച് ഉള്ള ത്രെഡ് തിരഞ്ഞെടുക്കാനും ഇപ്പോൾ ഒന്ന് തയ്ക്കുക എന്നാണെങ്കിലും ഇപ്പോഴൊരു ചുരിദാർ തയ്ക്കുകയാണെങ്കിൽ ചുരിദാർ ചുരിദാറിൻ്റെ തുണിക്ക് തുണിക്ക് ചേരുന്ന നൂല് തിരഞ്ഞെടുക്കാനൊക്കെ അറി അങ്ങനെയൊക്കെ ഒരിതുണ്ടേ കിട്ടുന്ന നൂല് ഏതെങ്കിലും കൈ കിട്ടുന്ന നൂലെടുത്ത് തയ്ച്ചാൽ അത് ഭംഗി കുറവായിരിക്കും അപ്പോൾ ചേരുന്ന ഒരു നൂല് തിരഞ്ഞെടുത്ത് ചെയ്യാനൊക്കെയായിട്ട് ഒത്തിരിയേറെ സഹായകമാണ് അതങ്ങനെ ചേരുന്ന ചുരിദാരിനായിട്ടുള്ള ഇതൊക്കെ ബ്ലൗസ് അങ്ങനെയൊക്കെ തയ്ക്കുമ്പോൾ എങ്ങനെയാണോ എന്താണോ തുണിയുടെ കളർ ആ തുണിയുടെ കളറിനനുസരിച്ചുള്ള നൂല് തിരഞ്ഞെടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട് സാധിച്ചാൽ നല്ല ഇതായിരിക്കും ഇല്ലെങ്കിൽ അത് പുറത്ത് മറ്റുള്ള പുറത്ത് കാണുമ്പോൾ അത് വൃത്തികേടായിട്ടിരിക്കും എംബ്രോയിഡറി ചെയ്യുമ്പോൾ കളറിനനുസരിച്ച് തുണിക്കനുസരിച്ച് നൂല് നല്ല ചേരുന്ന കളർ ചെയ്ത് അതു ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും